ഇന്ത്യയില് വേറൊരു സ്ഥ സംസ്ഥാനത്തും കാണാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത സവിശേഷതാന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാരങ്ങള് തന്നെ ആയിരിക്കും ആചാരങ്ങളും ഭാഷകളും മറ്റൊള്ള രാജ്യങ്ങള് പോലെ ആയിരിക്കില്ല എന്താ നമ്മുടെ സംസാരം പോലെ ആയിരിക്കില്ല വെ വേറെ സംസ്ഥാനത്തുള്ളവരുടെ സംസാരങ്ങളും പിന്നെ ആചാരങ്ങളും അതേപോലെ തന്നെയ വിവാഹം ഹൗസ് വാമിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഓരോ തരത്തില് മാറ്റങ്ങളായിരിക്കും പിന്നേ ഇന്ത്യയിൽ ആണങ്കിൽ തന്നെ ഓരോ പ്രദേശത്തു ഓരോരോ രീതിയിലുള്ള ആചാരങ്ങളും അനിഷ്ഠാനങ്ങളക്കെയാണുള്ളത് നമുക്കിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളതെന്ന് പറഞ്ഞാല് ത തല മറയ്ക്കുന്നവരുണ്ട് തല മറയ്ക്കുന്നവരുണ്ട് ഇല്ലാണ്ട് ഹിന്ദി നാട്ട്കൾടെ പോയതാണങ്കില് തലപ്പാവ് വെയ്ക്കുന്നവരുണ്ട് അതായത് സിക്ക്കാരെ പോലുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് ചില സംസ്ഥാനതക്കെ നമ്മടെ സംസ്ഥാനത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണുള്ളത് ആചാരങ്ങളാണ് കൂടുതലായിട്ടും മാറ്റങ്ങള് ഉള്ളത്